ഞാൻ ഈ അടുത്ത ദിവസ് അടുത്ത ദിവസം ഒരു കത്തി മേടിച്ചു ആ കത്തി യാത് ഭയങ്കര ഗുണങ്ങളെല്ലാം പറഞ്ഞാണ് അയാൾ തന്നത് പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് അരിഞ്ഞ് നോക്കി യാതൊരു ഗുണവുമില്ല അതിൻ്റെ അറ്റമെല്ലാം വളഞ്ഞ് മൂർച്ചയെന്ന് പറയുന്നത് ഇല്ല കത്തിക്ക് ഒരു പഴം മുഴിക്കാൻ മുറിക്കാൻ പോലും കൊള്ളത്തില്ല അത്രക്കും കൊള്ളത്തില്ലാത്ത വിധത്തിലുള്ള ഒരു കത്തിയാണ് തന്നത് വില കൊടുക്കുകയും ചെയ്തു ഈ അതുപോലുള്ള ക കത്തികൾ കിട്ടുന്നത് കൊണ്ട് നമുക്കെന്താണ് പ്രയോജനം യാതൊരു പ്രയോജനവും ഇല്ല നമ്മൾ വേറെ കത്തി മേടിക്കണം നമ്മുടെ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ